ഹലോ ഇത് ക്യാബ് ഏജൻസി അല്ലേ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എനിക്ക് വരുന്ന സൺഡേ പതിനേഴാം തീയതി ഒന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വരെ ഫാമിലി ആയിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി വേണമായിരുന്നു രാവിലെ തന്നെ ഇവിടുന്ന് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതായത് സമയം ഒര് അഞ്ചര ആറ് മണി ആവുമ്പോഴേക്കും അവരിവിടെ എത്തണം ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ വാട്ട്സപ്പ് ചെയ്ത് തരാം ഇങ്ങൾ ആ ടൈം ആവുമ്പോഴത്തേക്ക് ഇവിടെ എത്തുവോ ഇല്ലയോ നിങ്ങൾക്ക് വണ്ടി ഒഴിവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് വിളിച്ചത് പോവുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഒന്നും കൂടെ വിളിച്ച് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ലേറ്റ് ആവാതെ തന്നെ കറക്റ്റ് ആറ് മണിക്ക് ഉള്ളിൽ തന്നെ ഇവിടെ എത്തിത്തര എത്തിച്ചേരേണ്ടതാണ് ലൊക്കേഷൻ ഞാൻ വാട്ട്സപ്പ് ചെയ്ത് തരാം